പാരമ്പര്യ കൃഷിരീതി എന്നത് പൗരാണിക കാലം മുതൽ വിവിധ മേഖലകൾ ഉപയോഗിച്ചിരുന്നു പ്രകൃതിയ ആസ്പദമാക്കി കൃഷി പദ്ധതികളെയാണ് സൂചിപ്പിക്കുന്നത് ഇത് പ്രകൃതിയോടും സീസണും അനുസരിച്ചുള്ളതായും രാസവസ്തുക്കളുടെ ഉപയോഗം കുറഞ്ഞതായും സ്ഥിതികൾക്കും മണ്ണിനും അനുയോജ്യമായും അനുയോജ്യമായതുമാകുന്നു പ്രത്യേകിച്ച് കൃഷിയെന്നുള്ളത് അതിൻ്റെ ഓരോ കൃഷിയുടെ മാറ്റങ്ങൾ വളക്കൂറുള്ള മണ്ണിനനുസരിച്ച് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ പാരമ്പര്യ കൃഷിരീതിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചില വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഈ പ്രകൃതിസഹചമായ രീതികൾ അതായത് മഴവെള്ളം പുഴകളുടെ ജലസേചനം കായൽ കായലുകളുടെ കൃഷി എന്നിവ ഉപയോഗിച്ചുള്ള ജലനെ അതിലൂടെ നമുക്കെന്താകുന്നു നമ്മുടെ ഈ ജലം വെള്ളം കിട്ടുന്നു പിന്നെ ജൈവവളങ്ങളിൽ നോക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ പശുച്ചോറ് കുറേ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ കൃഷി ഫലഭൂയിഷ്ടിയാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രത്യേകം ഉദാഹരണങ്ങളിൽ പെട്ടതാണ് ഇത് കേരളത്തിലെ കൈൽ കൃഷി പാഠശേഖരം കൃഷി കൃഷിമൂപി വൈവിധ്യം തുടങ്ങിയ പിന്നെ തമിഴ്നാട്ടിൽ കുണ്ടിമരത്ത് അത് ടാങ്ക് ഇറിഗേഷൻ എന്നീ ജലസംരക്ഷണങ്ങങ്ങളിലൊക്കെ എന്താക്കുന്നുണ്ട് ഈ കൃഷിയിലെ വെള്ളത്തെ ഉല്പാദിപ്പിക്കാൻ ഒരുപാട് ജലസംഭരണി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെ സാംബോ സാബോ സിസ്റ്റം അതുപോലുള്ള സമഗ്രമായ മൃഗസംരക്ഷണ കൃഷി എന്താണ് ജലസംരക്ഷണ രീതിയിൽപ്പെട്ട പ്രത്യേക പാരമ്പര്യ കൃഷയിൽ പെട്ടതാണ് പാരമ്പര്യ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒന്നാമതായത് എന്താണ് പരിസ്ഥിതി സംരക്ഷമാണ് മറ്റൊന്ന് ആരോഗ്യമുള്ള ഭക്ഷണ ഉൽപാദനവും പിന്നെ മണ്ണിൻ്റെ ദീർഘകാല ഒരുത്തിരുഞ്ഞ നിലയിയും പിന്നെ ചെലവ് കുറഞ്ഞ കൃഷിഭാഗവും ഒക്കെ എന്താണ് പാരമ്പര്യ കൃഷിയുടെ ഏറ്റവും ഉപകാരപ്രദമായ ഭാഗങ്ങൾ ഇന്ന് ജൈവകൃഷി പുനരുജ്ജീവിക്കപ്പെടുന്ന പാരമ്പര്യകൃഷിയെ കൃഷിരീതിളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കൃഷിയെ പാരമ്പര്യ കൃഷിയെ നോക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമവും ഉത്തേജകവുമായതും അത് തന്നെയാണ് കാരണം നമുക്ക് നല്ല ഫലഭൂയിഷ്ടിയുള്ള കായികൾ തരുന്നു നല്ല നല്ല സസ്യങ്ങൾ മുളച്ചു വരുന്നു മണ്ണിനെ ഫലഭൂയിഷ്ടിയുള്ളതാക്കുന്നു ഭൂമിയെ നല്ല രീതിയിൽ ഫലഭൂയിഷ്ടിയുള്ളതാക്കുന്നു ജലസംഭരണിയിലൂടെ അത് വളർത്തിയെടുക്കുന്നു കൃഷി നല്ല നല്ല പഴങ്ങൾ നമ്മൾ കഴിക്കുന്നു ആരോഗ്യത്തിന് അത് നല്ല നല്ല ഫലങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആരോഗ്യത്തിന് നല്ലതായി വരുന്നു ഒട്ടും തന്നെ മോശമില്ലാതെ ഒട്ടും തന്നെ പ്രശ്നമില്ലാതെ അത് എന്താവുന്നു നമ്മളെ ആരോഗ്യത്തിനത് നല്ലതായി വരുന്നു അപ്പോൾ ഈ ഈ കാലങ്ങളായുള്ള കൃഷി മാറിവരുന്നത് എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ കെമിക്കല് ഉപയോഗിക്കാതെയുള്ള കൃഷി ആയിരുന്നു പിന്നീടത് കെമിക്കലും പെസ്റ്റിസൈഡ്സിനെ കൊല്ലാൻ അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് കെമിക്കല് ഉപയോഗിക്കുന്ന കാരണത്താൽ അത് എന്താവുന്നു പഴങ്ങളിലേക്ക് ബാധിക്കുന്നു അത് വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അത് വ്യത്യസ്തപരമായ നമുക്ക് പറയാൻ പേര് പറയാൻ പറ്റാത്ത മരുന്നുകൾ ഇല്ലാത്ത രോഗങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതിലേക്കും അത് എത്തിക്കുന്നു